ഹാലോ സാജൻ ഫോട്ടോഗ്രാഫറാണോ ആ സാറേ ഞാൻ കൊല്ലത്തുനിന്ന് വിളിക്കുവാണേ എൻ്റെ പേര് കെവിൻ എന്നാണ് ഞാൻ നിങ്ങളുടെ ഇൻസ്റ്റേലും യൂട്യൂബിലൊക്കെ നിങ്ങളുടെ ഒരുപാട് ഫോട്ടോസ് വിഡിയോസൊക്കെ ഈ വെഡിങ്ങിൻറ്റെയൊക്കെ കണ്ടിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ എന്നുവെച്ചാൽ ഭയങ്കര ക്രീയേറ്റീവായിട്ട് വെറയിറ്റിയായിട്ട് നിങ്ങൾ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അ അ ആ ഓക്കെ അപ്പം നെക്സ്റ്റ് മന്ത് ലെവൻത്തിന് എൻ്റെ കല്യാണം ആണേ അപ്പോൾ നിങ്ങളാ സമയത്ത് ഫ്രീ ആയിരിക്കുമോ ഒന്ന് ഡേറ്റൊന്ന് നോക്കിയിട്ട് പറയുമോ അടുത്ത നെക്സ്റ്റ് മന്ത് ലെവൻത്ത് ഫെബ്രുവരി ലെവൻത്ത് ലെവൻത്ത്ന്

ആ ഓക്കെ ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്ഥലം വരുന്നത് കൊല്ലത്താണെ കൊല്ലം പുനലൂർ എന്ന് പറയും പുനലൂർ ആ ഓക്കെ കുഴപ്പം ഉണ്ടായിരിക്കുമോ നിങ്ങൾക്ക് ട്രാവലിംഗിന് അ അ എനിക്ക് എനിക്ക് വേണ്ടുന്ന അ എനിക്ക് ഫുൾ കംപ്ലീറ്റ്ലി നിങ്ങളെ എൽപ്പിക്കാൻ വേണ്ടിയാണ് എൻ്റെ എൻ്റെ വെഡിങ്ങിൻറ്റെ മോത്തം അതിനകത്ത് നമുക്ക് ഫസ്റ്റ് നമുക്ക് സേവ് ദ ഡേറ്റ് ഒക്കെ ഇല്ലേ അ ബഡ്ജറ്റിനൻസരിച്ച് ചെയ്തുതരുമോ ഓക്കെ അപ്പം ഞാൻ എൻ്റെ ഒരു ആഗ്രഹങ്ങൾ എനിക്ക് വേണ്ടുന്ന നീഡ് ഞാൻ പറയാം അതനുസരിച്ചൊന്ന് ബഡ്ജറ്റ് നോക്കിയിട്ടൊന്ന് പറയാമോ ആ അ അപ്പോൾ അപ്പോൾ എനിക്ക് വേണ്ടുന്നത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് സേവ് ദ ഡേറ്റിന് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യണം അത് മാക്സിമം നല്ല അ പുതിയൊരു നല്ലൊരു തീമിൽ തന്ന സെറ്റ് ചെയ്യണം ഞങ്ങളുടെ ഞങ്ങളുടെ ലൗ മാരേജാ അപ്പം അതനുസരിച്ച് നല്ല സെറ്റപ്പായിട്ട് തന്നെ ഞങ്ങൾക്കൊന്ന് സെറ്റ് ചെയ്ത് തരണം അതിനുശേഷം രണ്ടാമത് നമുക്ക് വരുന്നത് എൻഗേജ്മെൻ്റിന് ഷൂട്ടിംഗ് വേണം അത് ചങ്ങനാശ്ശേരി വെച്ചായിരിക്കും

ചങ്ങനാശ്ശേരിയിലാ എൻഗേജ്മെൻ്റെ ഷൂട്ടിംഗ് അതിന് ശേഷം പിന്നെ കല്യാണം വരുന്നത് കൊല്ലത്താ പുനലൂരിൽ ആ അപ്പം നമുക്ക് കല്യാണത്തിനാണെങ്കിൽ അതിൻ്റെ തലേന്ന് ജസ്റ്റ് ഒരു പാർട്ടിയുണ്ട് എൻഗേജ്മെൻറ്റിനില്ല കല്യാണത്തിൻറ്റെ തലേന്ന് ഒരു ജസ്റ്റ് പാർട്ടിയുണ്ട് അപ്പം അന്ന് ജസ്റ്റ് ചെറിയ ഒരു ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടുന്ന ഒരു ചെറിയൊരു മധുരം വെപ്പൊക്കെ പോലെത്തെ ജസ്റ്റൊരു പ്രോഗ്രാമാ അപ്പം അതിന് ജസ്റ്റൊന്ന് കവറ് ചെയ്യണം രണ്ടാമത് നമുക്ക് വരാം മൂന്നാമത് നമ്മുടെ വരുന്നത് നമ്മുടെ കല്യാണമാ നമ്മുടെ കല്യാണത്തിന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മുടെ പള്ളിയിലും പിന്നെ അതോടൊപ്പം തന്നെ വൈകുന്നേരം നമ്മളൊരു റിസോട്ടിലാണ് നമ്മുടെ റിസപ്ഷൻ അറേഞ്ച് ചെയ്തേക്കുന്നത് അപ്പോൾ ആ റിസപ്ഷന് റിസെപ്ഷനുണ്ട് ഇത്രയാണ് നമുക്ക് ഇതിലുള്ള നമ്മുടെ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഓക്കെ അതിന് ആ ആ ഓക്കെ ഓക്കെ ഒന്ന് ഒന്ന് വേഗം തന്നെ പറഞ്ഞായിരുന്നെങ്കിൽ ആ വൺ ലാക്കിനകത്ത്

വിഡിയോ നമുക്ക് ഫുള്ളുണ്ടോ അതോ നമുക്ക് പെൺഡ്രൈവാണോ പെൺഡ്രൈവില് സി ഡി ആയിട്ടാണോ കിട്ടുന്നത് അതോ ഫുള്ള് കവറ് ചെയ്യുന്നുണ്ടോ വീഡിയോ നമ്മൾ കല്യാണതും എല്ലാം

ആ ഓക്കെ ഈ ആൽബം ഒക്കെ ആവാൻ എത്ര സമയം പിടിക്കുമായിരിക്കും എത്ര ദിവസം വരും ഞങ്ങൾക്ക് ഉടനെ തന്നെ തിരിച്ച് പോവണം കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾ ജർമനീലാ അപ്പം ഞങ്ങൾക്ക് ആകെ ഒരാഴ്ച്ച സമയമേ ഉള്ളൂ അപ്പോൾ അതിനുള്ളിൽ തരുമോ അപ്പോൾ തരാൻ പറ്റുമോ നിങ്ങൾക്ക് ആൽബവും വിഡിയോസും ആ ഓക്കെ ഓക്കെ ഓക്കെ ആ കാരണം ഞങ്ങൾക്ക് കിട്ടിയായിരുന്നെങ്കിൽ അത് വലിയ ഉപകാരമായിരുന്നു കാരണം ഞങ്ങൾ വൺ വീക്കെയുള്ളൂ അതുകഴിയുമ്പം ഞങ്ങൾക്ക് ജർമനിക്ക് തിരിച്ച് പോവണം അപ്പം അത് കൊണ്ട് വേ പെട്ടെന്നുതന്നെ ചെയ്തുതരികയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു പിന്നെ ചേട്ടാ അതോടൊപ്പം നമ്മളെ ഈ റേറ്റെ ഈ അപ്രോക്സിമേറ്റ് എത്ര ആവും എന്ന് അറിയുമോ ഇപ്പം വൺ ലാക്കിന് അകത്തു നിൽക്കുമോ എന്ന് പറഞ്ഞു അപ്പോൾ എന്നാലും ഒരു എത്രയാവും എന്നൊന്ന് ഏകദേശം ഒരു ആവറേജ് ഒരു അപ്പ്രോക്സിമേറ്റ് ഒരു കണക്ക് പറയാൻ പറ്റുമോ

ഒരു എഴുപത്തഞ്ചല്ല എമ്പത് ഒരു എമ്പത് നാൽപ്പത് നിർത്താൻ പറ്റുമോ

നിങ്ങൾ നോക്കി നോക്കിയിട്ടൊന്ന് അ സെറ്റ് ചെയ്ത് തന്നാൽ മതി ഓക്കെ നിങ്ങൾക്ക് എങ്ങനെ ഫുഡിൻ്റെ അക്കോമഡേഷൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളതോ ഡെയിലി പോയിവരുകയാണോ അതോ നിങ്ങൾക്ക് ഇവിടെ അറേൻ ആ ഇപ്പം കല്യാണത്തിന്റെ തലേന്ന് നമുക്ക് പ്രോഗ്രാമ് ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് വീട്ടിൽത്തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് ഞാൻ തരാം ആ അതാവുമ്പം നിങ്ങൾക്ക് വലിയ കുഴപ്പം വരത്തില്ല അതാവുമ്പം നിങ്ങൾക്ക് പിറ്റേന്ന് രാവിലെ പോവാനൊക്കെ കാര്യങ്ങൾ കുഴപ്പം ഇല്ലായിരിക്കുമല്ലോ ആ അപ്പം എല്ലാം എല്ലാം സെറ്റാക്കി ചെയ്യത്തില്ലേ ആ ആ ആ ആ ഓ ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ ചേട്ടാ മറക്കല്ല് ലെവൻത്തിന് കേട്ടോ ലെവൻത്തിന് നമ്മുടെ കല്യാണം ടെൻത്തിന് നമ്മുടെ വൈകീട്ട് വീട്ടിൽ പരിപാടി ഫിഫ്ത്തിനാണ് നമ്മുടെ എന്കേജ്മെൻറ്റ് അ ഓക്കെ ഓക്കെ താങ്ക്സ് ഏട്ടാ ഓക്കെ ഓക്കെ എന്നാൽ ഓക്കെ